എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം ബൈക്ക് എടുത്തുപോയിട്ട് വീഴ്ച്ച വീണിട്ടുണ്ട് വീണിട്ട് കൈ ഒടിഞ്ഞിട്ടുണ്ട് അതേപോലെ ബൈക്കിങ്ങിൽ നല്ല സ്പീഡിൽപ്പോക്കും ലവ്വറിനെയൊക്കെ കയറ്റിപ്പോക്കും അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത അനുഭവം എന്നു വച്ചു കഴിഞ്ഞാൽ ബൈക്ക് കുറച്ച് സ്പീഡിൽപ്പോയിട്ട് വീണിട്ട് കൈകാലൊക്കെ പൊട്ടി അതാണ് മറക്കാൻ പറ്റാത്ത അനുഭവം പിന്നെ ബൈക്കിങ്ങിൽ നമുക്ക് ദൂരെ പോയപ്പം നമ്മൾ ഏറ്റവും ഡ്രൈവിങ്ങ് കയിഞ്ഞിട്ടു റൈഡിങ്ങിനു പോകുമ്പോൾ എന്തോ ഒരു മനഃസുഖമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മറക്കാൻ പറ്റാത്തത് ബൈക്കിൽ ഊട്ടി പോയതാണ് കുറേ പത്ത് ഇരുപത് ബൈക്ക് ഹിമാലയമുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പോയിരുന്നത് അങ്ങനെ നല്ല ഇഷ്ടമായിരുന്നു അത്രയ്ക്കും എനിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മ ഊട്ടിയിൽ ബൈക്കും കൊണ്ടുപോയതാണ് ഇപ്പോൾ അപ്പോഴൊക്കെ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ അവിടെ എത്തി ഒരു മാസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് റിട്ടേൺ വന്നു നല്ല സന്തോഷമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ബൈക്കിന് ഒരു കംപ്ലയിൻ്റൊന്നും വന്നിട്ടില്ല നല്ലതായിരുന്നു അതൊക്കെയാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇത് അനുഭവം അതാണ്